അസുഖങ്ങൾ ചികിത്സിക്കാൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സാധാരണ ഒരു പനി ജലദോഷം തൊണ്ട വേദന അങ്ങനത്തെ ഒക്കെ അസുഖങ്ങൾ ആണെങ്കിൽ വീട്ടു വൈദ്യം തന്നെയാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം ചെയ്യുന്നത് കാരണമെന്ന് വച്ചാൽ ഒന്ന് ആവി പിടിപ്പിച്ചാലോ അല്ലെങ്കിൽ ഒരു പനിക്കൂർക്ക ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ നീര് ഒന്ന് കുടിച്ചാലോ അല്ലെങ്കിൽ ഒരു കഷായം വച്ച് കുടിച്ചാലോ ഓക്കെ ആകുമ്പോൾ ഈ തൊണ്ട വേദന അല്ല ജലദോഷം പോലത്തെ അസുഖങ്ങളൊക്കെ കൊറെയേറെ നമുക്ക് മാറിക്കിട്ടും പിന്നെ ഒരു തൊണ്ടവേദന ഒക്കെയാണെങ്കിൽ നമ്മളിപ്പോൾ ഉപ്പിട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കഴുകുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ വ്യത്യാസം വരും അല്ല ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് എനിക്ക് വീട്ടുവൈദ്യങ്ങൾ ചികിത്സിക്കാൻ തന്നെയാണ് ഇഷ്ടം പിന്നെ സാധാരണയായിട്ട് ഉള്ളത് ഇതുപോലെത്തെ തൊണ്ടവേദന അങ്ങനത്തെ ഒക്കെ അസുഖം ആണെങ്കിൽ നമ്മളിപ്പോൾ കഷായം ആവി പിടിപ്പിക്കുക അങ്ങനത്തെ ഒക്കെ ആണ് സാധാരണ ചെയ്യുന്നത് അല്ല നമ്മളെ കയ്യിൽ ഒതുങ്ങാത്ത വലിയ വലിയ അസുഖങ്ങൾ ആണെങ്കിൽ വീട്ടിൽ നമ്മൾ വീട്ടുവൈദ്യം ചികിത്സിച്ചിട്ട് സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല നേരെ ഡോക്ടറെ കാണിക്കുക തന്നെയാണ് ചെയ്യുന്നത് അല്ലാത്ത കുഞ്ഞു കുഞ്ഞു അസുഖങ്ങൾ ആണെങ്കിൽ വെറുതെ ആൻ്റിബയോട്ടിക്ക് എടുക്കുന്നതിനെ കാട്ടിയും നല്ലത് എനിക്ക് തോന്നുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള നാടൻ വൈദ്യം ചികിത്സിക്കുന്നത് തന്നെയാണ് നല്ലത്